ഞാൻ ഇന്നലെ ഇവിടെനിന്ന് ഒരു കത്തി വാങ്ങിനേ നല്ലോണം നോക്കിയിട്ട് എല്ലാം വാങ്ങിയത് നല്ലവണ്ണം നോക്കീന് ഞാൻ നോക്കി നോക്കിയിട്ട് വാങ്ങിയത് കുറേ കത്തിയുണ്ടായ്ന് അതിനകത്ത് വില കൂടിയതുമാണ് നല്ല മൂർച്ചയുള്ളതും നോക്കിയിട്ടാണ് വാങ്ങിയത് വീട്ടിൽ പോയിട്ട് രാത്രിയായിനു വാങ്ങിയത് വീട്ടിൽ പോയി ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചിട്ടതാണ് മുറിച്ചിട്ട് നോക്കുമ്പോൾ കത്തിക്ക് മൂർച്ചയില്ല ഞാൻ അമ്മീമേലെല്ലാം ഇട്ടിട്ട് അണച്ചിട്ടെല്ലാം നോക്കി എന്നിട്ട് മൂർച്ച കിട്ടുമോ നോക്കി എന്നിട്ടും മൂർച്ച ഇല്ല ഇടയ്ക്ക് വരുന്നുണ്ട് ഇടയ്ക്ക് മൂർച്ച ഇല്ല ഇതുപോലെത്തെ കത്തീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അണച്ചിട്ട് വരെ മൂർച്ചയില്ലാത്ത കത്തി ഇരുനൂറ്റി അൻപത് റുപ്പിക കൊടുത്തിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെനിന്നൊരു കത്തി വാങ്ങിയത് ഇനിയിപ്പോൾ തന്നു നോക്കുമ്പോൾ ഇവർ പറയുന്നു തിരിച്ചെടുക്കില്ല ഇത് കത്തി ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത്രയും മൂർച്ച ഇല്ലാത്ത കത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു കേക്ക് മുറിയുന്നില്ല ഒരു ഉള്ളി മുറിയുന്നില്ല ഒരു പച്ചക്കറി ഒന്നും മുറിയുന്നില്ല പിന്നെ എനിക്ക് ആ കത്തീനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരു ഉപകാരമില്ലാത്ത സാധനം എനിക്ക് എന്തിനാണ് അതുകൊണ്ട് ആ കത്തി എനിക്ക് വേണ്ട നിങ്ങൾ എനിക്ക് മാറ്റി തന്നേ പറ്റൂ ഈ കത്തി ഉപയോഗിക്കാനേ ആവില്ല അത്രയും മോശപ്പെട്ട ഒരു കത്തിയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെത്തെ ഒരു കത്തീനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കത്തി മാറ്റി തരണം പുതിയ കത്തി തരണം ഇത് മൂർച്ച ഇല്ലാത്തതാണ് ഇവിടെനിന്ന് തന്നെ നിങ്ങൾ മൂർച്ച ആക്കിയിട്ട് തന്നാൽ മതി അല്ലാതെ എനിക്ക് ഈ കത്തി വേണ്ട ഇത്രയും മൂർച്ച ഇല്ലാത്ത സാധനം എനിക്ക് വേണ്ട